ആ അതെ പറയൂ ആ ആ പറയൂ പറയൂ ആ ആ ഇവിടെ ഇവിടെ മസാലച്ചായ ഉണ്ടായിരുന്നു ജിഞ്ചർ ചായ ഉണ്ടായിരുന്നു പിന്നെ എം എ എങ്ങനത്തെ ടൈപ്പാ നിങ്ങൾക്ക് വേണ്ടത്

ഇന്നിവിടെ സ്റ്റാഫും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ ജിഞ്ചർച്ചായയാണ് കൊടുക്കാറ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം പുറത്തുന്നൊക്കെ ആൾക്കാർ വന്നിട്ട് കുടിക്കുന്നതും നല്ലഭിപ്രായം പറയുന്നതൊക്കെ ജിഞ്ചർച്ചായക്കായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ആളില്ലാത്തതിൻറ്റേതോണ്ടാണ് പക്ഷേ സാരമില്ല ഇങ്ങളിപ്പം അവിടെ തൊട്ടപ്പറത്തുന്ന് പറഞ്ഞതല്ലെ അത് ഞാൻ ഞാൻ ത എൻ്റെ റിസ്ക്കിൽ ഞാനുണ്ടാക്കി തരാം ആ കൂടെ കൂടെന്തെങ്കിലും വേണമായിരുന്നോ കൂടെ കഴിക്കാൻ അ ഉള്ളിവട ഉണ്ട് പരിപ്പുവട ഉണ്ട് പിന്നെ പപ്പ്സുണ്ട് ആ ച്ച മാഡം ഇങ്ങട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ ഇതിൻ്റെ മുന്നെ നമ്മളെ ചായേനെക്കുറിച്ചെന്താണ് അഭിപ്രായം ആഹാ താങ്ക് യു താങ്ക് യു ആ ആ ആ ആ താങ്ക് യൂ എപ്പോഴെക്ക് എപ്പോഴെക്കാണ് ആ ഓക്കെ എന്നാൽ ഞാൻ ഇപ്പോൾ എത്തിക്കാട്ടോ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്ക് യു